പണ്ടൊക്കെ കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലത്ത് ഗോൽക്കളി കളിക്കുക കള്ളനും സാറ്റും കളിക്കുക ഇതൊക്കെയാണ് പഴയ കാലത്തെ കുട്ടികൾ ഒഴിവു സമയങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു മൊബൈലിൻ്റെ ഒരു ഭയങ്കരമായിട്ട് നമ്മൾ കാണാൻ പറ്റുന്ന ഇപ്പോൾ ഇപ്പോൾ ഒരു ചെറിയ സമയം കിട്ടിയാൽ പോലും കുട്ടികൾ നേരെ മൊബൈലിലുള്ള കാര്യങ്ങൾ മൊബൈലിലത്തെ കളികൾ കളിക്കാനൊക്കെയാണ് അവർ താല്പര്യപ്പെടുന്നത് കാരണം അവർ ചെറുപ്പം മുതലേ അവരുടെ അച്ഛനും അമ്മയും കണ്ട് കണ്ട് വളർന്നത് അതായിരിക്കും അത്കൊണ്ട് തന്നെ നമുക്ക് കുട്ടികളെ മോശം പറഞ്ഞിട്ടും കാര്യമില്ല അതേപോലെ തന്നെ പണ്ടൊക്കെ കുട്ടികൾ അവരുടെ സർഗാത്മക കഴിവുകൾ അവർക്ക് ഉള്ളിൽ ഉള്ളിലുള്ള കഴിവുകൾ അവർ വളർത്തിയെടുക്കാൻ അവർ വളരെ ശ്രമിച്ചിരുന്നു പണ്ടൊക്കെ അവർ ഒരുമിച്ച് കളിക്കുകയാണെങ്കിൽ മറ്റു കുട്ടികളോട് എങ്ങനെ പെരുമാറണം എങ്ങനെ പെരുമാറണ്ട എന്നവർക്ക് നല്ല രീതിക്ക് അറിയാം പിന്നെ അവർക്കുള്ള കഴിവുകൾ ഇപ്പോൾ പാട്ടു പാടാനായാലും ഡാൻസ് കളിക്കാനായാലും അവർ അങ്ങനെ കാരണം അവിടെ വേറെ അവർക്ക് ഒന്നും ചെയ്യാനില്ല അവിടെ മൊബൈല് വന്നത് മൊബൈല് ഇപ്പോൾ വന്നതുകൊണ്ട് കുട്ടികൾക്ക് എത്ര മണിക്കൂറുകൾ ഇരുന്നാലും കുറച്ചു നേരം ഇരുന്ന പോലെ ആയിരിക്കും തോന്നുക അതുകൊണ്ടാണ് മൊബൈലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നു പറയുന്നത് അതാണ് പക്ഷെ എന്താണ് പറയുക നമ്മുടെ ഈ ഒരു ഈ ഒരു കാലഘട്ട ഇപ്പം ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും കുട്ടികൾ വേറെ ഒരു ഇതിനു പോവാതെ മറ്റു കുട്ടികളോട് ഒന്നും സംസാരിക്കാതെ അവർ അവർ അവർ അവരിലേക്ക് തന്നെ ഒതുങ്ങുകയാണ് അവർ അവരുടെതായ ഒരു ലോകത്ത് അവരുടേതായ ഒരു ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ ഒരു കൊറോണയ്ക്ക് ശേഷം എല്ലാവരുടെ കയ്യിലും ഫോണുകൾ ഉണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ ഫോണുകൾ നോക്കി ഇരിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിൽ ചെയ്യുന്നു അല്ലാതെ വേറെ ഒന്നും അതിൽ ചെയ്യുന്നില്ല പണ്ടാണെങ്കിൽ അങ്ങനെ ഒരു ഫോൺ ഇല്ല നമുക്ക് നമ്മുടെ പാടത്തും പറമ്പത്തും നമ്മൾ കളിച്ചു വളർന്ന ആ ഒരു ഇത് കുട്ടികൾക്ക് ഇപ്പോൾ ഒരു അന്യം നിന്നു പോയ കാര്യമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് എന്താണെന്ന് കൂടി അറിയില്ല അവർക്ക് ഇപ്പോൾ ഒരു ചെറിയ അവർ മാതാപിതാക്കളെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നതാണ് കാരണം അവർ പുറത്തുപോയി പഠിക്കണം കളിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു പാരൻസ് ആണെങ്കിൽ അവർ അവരെ വിടും പക്ഷേ ഇപ്പോഴത്തെ പാരൻസ് എന്ന് പറയുന്നത് പുറത്തു പോകുന്നത് സേഫല്ല അവർക്ക് രോഗങ്ങൾ പെട്ടെന്ന് വരും അങ്ങനെ ഒക്കെ ചില ഒരു കാരണങ്ങൾ പറഞ്ഞ് അവരെ വീട്ടിൽ തന്നെ അവർ ഒതുക്കി കൂട്ടുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ പോവാനും താല്പര്യം ഇല്ലാതായി വരുകയാണ് അപ്പോൾ അവർക്ക് ഒഴിവ് സമയത്ത് അവർക്ക് ചെയ്യാൻ താല്പര്യം ഉള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും പാരൻസ് അതിന് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവർക്കുള്ള സാഹചര്യം അവർ ഉണ്ടാക്കി കൊടുക്കുകയാണ് അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒഴിവു സമയത്ത് അവർക്ക് കളിക്കാനും എല്ലായ്പ്പോഴും പഠിക്കുന്നതല്ലാണ്ട് വല്ലപ്പോഴൊക്കെ കളിക്കാനും ചിരിക്കാനും ഒക്കെ അവർക്ക് ഇനിയും സമയം കൊടുക്കണം അതാണ് കുട്ടികൾ ഒഴിവു സമയങ്ങളിൽ കൂടുതലായിട്ട് ചെയ്യേണ്ടത്